ഹലോ ഹലോ എന്താണ് അതിന് ബുക്ക് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ അത് തന്നെ കാണിച്ചാലല്ലേ മാറുവാ കേടുണ്ടോ പല്ല് കേടുണ്ടോ പല്ലിന് കേടാണോ പല്ല് കേടുണ്ടോ ആ എവിടുത്തെ പല്ലാ അണ്ണിപ്പല്ലാ ആ അപ്പോൾ രാവിലെയും വൈകുന്നേരവും പല്ല് തേക്കലുണ്ടോ വൈകുന്നേരം പല്ല് തേക്കാറുണ്ടോ ആ പിന്നെന്താ ഇങ്ങനെ പല്ല് വേദന മധുരം മധുരം അതെയോ എന്നാൽ എന്തോ തലയ്ക്ക് എന്തെങ്കിലും കുറച്ച് കൊ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവും കേടുണ്ടാവും തലവേദനയുണ്ടോ ആ എന്നാൽ പിന്നെ പിന്നെ ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വന്നാൽ മതി നേരിട്ട് വെ നേരിട്ട് വന്നാൽ മതി പേരെന്താ പേരെന്താ പേരെന്താ

ആ എന്നാൽ ഞാനിവിടെ എഴുതി വെക്കാം മറ്റന്നാൾ മറ്റന്നാൾ ഒരു ഒന്നര മണിയാവുമ്പോൾ വന്നാൽ മതി പഞ്ചസാരയൊന്നും പഞ്ചസാരയൊന്നും മധുരം ഓവറ് കഴിക്കേണ്ട അതുകൊണ്ടാണീ പല്ലുവേദന വരുന്നത് കേട്ടോ കേടുള്ള ഭാഗത്തേക്ക് ഒന്നും കഴിക്കാനും പാടില്ല തിന്നാൻ ചവക്കുമ്പോൾ ആണ് ബുദ്ധിമുട്ട് വരുന്നത് ആ ന്നാ ആയി ന്നാ എന്നാൽ വിളിച്ചാൽമതി ബുക്ക് ചെയ്തിട്ട് വരണം കേട്ടോ ബുക്ക് ചെയ്തിട്ട് വന്നാൽമതി തിരക്കാണ് ഭയങ്കര